ഹലോ ആ എബ്രഹാം പാറയിൽ എന്നയാളാല്ലേ ആ ചേട്ടനൊരു കൊറിയര് വന്നിട്ടുണ്ടായിരുന്നു ഒരു പാഴ്സല് വന്നിട്ടുണ്ടായിരുന്നു അത് അത് എന്തോ ഉത്തരവാദിത്തപ്പെട്ട സാധനമാണ് അത് എന്ത് എന്താണ് നേരിട്ടുപോയി കൊടുക്കണമെന്ന് അതാണ് ഞങ്ങളെ നിർദ്ദേശം ഞങ്ങൾക്കു തന്നിരിക്കുന്ന നിർദ്ദേശം നേരിട്ടേ കൊടുക്കാൻ പാടുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇല്ലെങ്കിൽ ഇപ്പോൾ ചെയ്യാം ഇപ്പോള് എന്നാണു വരാന് പറ്റുന്നത് രണ്ടു ദിവസം കഴിയുമോ ഓ അല്ല അല്ല അതുവരെ ഇത് വച്ചോണ്ടിരിക്കാന് പറ്റുന്നൊരു സാധനമല്ല സ്പീഡ് പോസ്റ്റ് അതിലൊക്കെ എത്രയും വേഗം കൊടുക്കുക ഇതുപോലുള്ള പാഴ്സലുകള് വന്നുകഴിഞ്ഞാല് എത്രയും വേഗം ഡെലിവറി നടത്തുക എന്നുള്ളതാണ് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന നിർദ്ദേശം അത് അപ്പോള് ഉത്തരവാദിത്തപ്പെട്ട ആരേങ്കിലും ആരുടെയെങ്കിലും ഇതില് കൊടുക്കാൻ ഏർപ്പാടെയ്യാന് പറ്റുമോ വീട്ടിലാരെങ്കിലും ുണ്ടോ അതെയോ വീട്ടിലാരെങ്കിലുമുണ്ടോ അതെയോ വീട്ടിൽ ആരുമില്ല അല്ലെങ്കിൽ നിങ്ങള് റിലേറ്റീവ്സുമായിട്ടോ അല്ലെങ്കില് സുഹൃത്തുക്കളായിട്ട് വളരെ അടുപ്പമുള്ള സുഹൃത്തുക്കളാരെങ്കിലുമുണ്ടോ അതോ അവരുടെ നിങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്തത്തോടുകൂടിയേ കൊടുക്കാൻ പറ്റുകയുള്ളൂ നിങ്ങൾ അപ്പോള് അയ് ഈ സ്പീഡ്പോസ്റ്റാകുമ്പോള് വരുന്ന അന്ന് ഇന്ന് അല്ലെങ്കിൽ നാളെ രണ്ടു ദിവസം രണ്ട് രണ്ടു ദിവസത്തേക്ക് നിങ്ങള് ഇത് ഡെലിവറി നടത്തണമെന്നാണ് ആണ് ഞങ്ങള്ക്കൊന്ന് കിട്ടിയിരിക്കുന്നത് അതേ അതെ അപ്പോള് ഞങ്ങള്ക്ക് രണ്ടു ദിവസത്തിൽ കൂടുതല് രണ്ടു ദിവസത്തിനകം വരാൻ പറ്റിയെങ്കിൽ നേരിട്ട് തരാമായിരുന്നു അല്ലെങ്കിൽ വേറാരെയെങ്കിലും നിങ്ങള് ഏർപ്പാട് ചെയ്യണം മേടിക്കാനായിട്ട് ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും ഒരാളെ ഏർപ്പാടു ചെയ്യുകയാണെങ്കിൽ അവർക്ക് അവരുടെ കൈവശം കൊടുക്കാം ആ അത് അനിയനല്ലേ അപ്പോള് അനിയൻ്റെ വീട്ടിൽ വീട്ടിൽ അനിയൻ അല്ലെങ്കില് അനിയത്തിയാണെങ്കിലും കാണുമായിരിക്കുമല്ലോ നിങ്ങള് ഞാനവിടെ ചെല്ലാം ആ ഭാഗത്തു ചെന്നുകഴിയുമ്പോള് ഒന്നുകൂടെ വിളിക്കാം അന്നേരം അനിയനോട് വന്ന് കലക്ടെയ്യാനായിട്ടൊന്ന് അല്ല അവനവിടെ ഇല്ലെങ്കിൽ അവൻ്റെ വീട്ടിൽ വൈഫ് പിള്ളേര് പ്രായമായ മക്കളൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കില് അവർക്കായാലും കൊടുക്കുക നിങ്ങള് റിലേറ്റീവ്സാണല്ലോ അപ്പോള് അവരോട് നിങ്ങള് നല്ല ടേംസിലാണെങ്കിൽ കുഴപ്പമില്ല പൈസ നിങ്ങള് അടച്ചില്ലെങ്കിലത് പൈസ കേഷും കൂടെ ഒന്ന് അവരോട് ഒന്ന് ഒന്ന് സംഘടിപ്പിച്ചു തരാൻ പറയുക എന്നിട്ട് നിങ്ങള് വന്നുകഴിയുമ്പോള് പൈസ തരാമെന്നുള്ള അല്ലെങ്കിൽ ഗൂഗിൾ പേ വഴിയോ അവരുടെ അക്കൗണ്ടിലേക്കു കയറ്റിക്കൊടുക്കുക എങ്ങനാന്നിട്ടവര് അല്ലെങ്കില് നിങ്ങളെൻ്റെ അക്കൗണ്ട് എൻ്റെ നമ്പറിലേക്ക് ഗൂഗ്ൾ പേ ചെയ്താല് മതി അതിനുഷം അവരോടു വാങ്ങിക്കാന് പറഞ്ഞാല് മതി ഞങ്ങൾ കൊടുത്തേക്കാം അങ്ങനെ ചെയ്യാം

അതങ്ങനെ ഒത്തിരി സമയം വെയ്റ്റെയ്യാൻ പാടില്ല എന്നുവച്ചു കഴിഞ്ഞാല് എനിക്ക് ഇതുപോലെ വേറെ കുറേ പാഴ്സലുകൾ ഇങ്ങനെ കൊടുക്കാനുണ്ട് അതും കൊടുക്കേണ്ടതാണ് അപ്പോള് എനിക്ക് ഇങ്ങനെ ഇതിനകത്തു പത്ത് അൻപത് പാഴ്സലുകൾ എൻ്റെ കൈവശം ഇരിക്കുകയാണ് അത് എല്ലാം ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ചെയ്ത് ഇന്നു തീർക്കേണ്ടതാണ് ആ അതിപ്പോള് ഞാന് പറഞ്ഞതുപോലെ അത് അനിയനോ അനിയൻ്റെ വീട്ടിലുള്ള ആരെങ്കിലുമാണ് അവരെ ഒന്ന് ഉത്തരവാദിത്തപൂര്വം ഏൽപ്പിച്ചാല് മതി അത് ഞങ്ങള്ക്കു കൊടുത്തേക്കാം കുഴപ്പമില്ല അത് നിങ്ങളേംകൂടിയൊരു ഉവ്വ് ആ ആരും കുഴപ്പമില്ലത് താമസിക്കാതെ വിളിക്കണം കാരണമെന്നുവച്ചുകഴിഞ്ഞാല് ഞാനേ ഇനി പല മേഖലകളിലും പോകാനുണ്ട് ദൂരം ഇത്ര ഏറിയായിൽ പോകാനുണ്ട് അതുകൊണ്ട് എത്രയും വേഗം വിളിച്ചു വിവരം ചോദിച്ചിട്ടേ വാഹനമവിടംവരേയ്ക്ക് എത്തുന്നതാണോ ആ ഞാൻ സ്കൂട്ടിക്കാണ് വരുന്നത് അത്